ഹലോ സ്റ്റാർ പൂക്കടയാണ് മാനന്തവാടി അതെ അതെ സ്റ്റാർ പൂക്കട മാനന്തവാടി ആ എങ്ങനെത്തെ പൂവാണാവശ്യം എന്ത് പരിപാടിക്കാണ് ഓണപ്പരിപാടിക്കാണോ അപ്പോൾ എത്രയാ ബഡ്ജെറ്റൊക്കെ അയ്യായിരം രൂപക്കാ ആണോ ഓ അപ്പോൾ നമുക്ക് ഉള്ള പൂക്കൾ എന്ന് വെച്ചാൽ പൂ ഇടാൻ വേണ്ടി കൊണ്ടുപോവുന്ന പൂക്കൾ എന്ന് വെച്ചാൽ റോസാപ്പൂ അത് ഇപ്പോൾ റോസ് കളറ് വരുന്നതുണ്ട് റെഡ് കളറ് വരുന്നതുണ്ട് ചെണ്ടുമല്ലി ജെമന്തി പിന്നെ മുല്ലപ്പൂ ഉണ്ട് പിന്ന ഇപ്പങ്ങനെ കുറേതരം പൂക്കളുണ്ട് കൂടുതലും പോവുന്നത് ചെണ്ടുമല്ലി ജെമന്തി റോസാ അതൊക്കെയാണ് കൂടുതലും പോവുന്നത് ആ ഉവ്വ് പിന്നെ താമരയുണ്ട് താമരയുണ്ട് ആ താമരയുണ്ട് താമര എന്ന് വെച്ചാൽ പൂവിൻറ്റെയൊക്കെ നടുക്ക് വെക്കാൻ പറ്റിയ രീതിക്കുള്ളതാ അതെ അതെ ആ ഹാ തിങ്കളാഴ്ച്ചത്തേക്കാ ആ അത് എപ്പത്തെ എപ്പോഴാണ് വേണ്ടത് തിങ്കളാഴ്ച എത്ര മണിക്കാണ് വേണ്ടത് ആ നിങ്ങൾ നിങ്ങളെവിടെ സ്ഥലം ആ എഞ്ചിനീയറിംഗ് കോളേജ് അടുത്ത് അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള പരിധി വരെയാണ് എത്തിച്ചുകൊടുക്കൽ അതെ അതെയതെ രാവിലെ വരുമ്പോൾ എടുക്കാനാണ് അപ്പോൾ ചെണ്ടുമല്ലിയും ഇതൊക്കെ എത്ര കിലോ വെച്ച് വെക്കേണ്ടി വരും ചെണ്ടുമല്ലിയും ഇതൊക്കെ എത്ര കിലോ വെച്ച് വെക്കേണ്ടി വരും പൂക്കൾ എല്ലാം അയ്യായിരം ഉറിപ്പ്യക്ക് കണക്കായിട്ട് എല്ലാംകൂടി എടുക്കാനാ ഏ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ലേ താമര വെക്കട്ടെ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കാം ഓക്കെ ആ തിങ്കളാഴ്ച രാവിലെ വിളിക്കാം